ഹലോ ഇത് കെ എസ് ഇ ബീൻ്റെ ഓഫീസല്ലേ വിളിച്ചത് എന്താ വെച്ചാൽ ഞങ്ങളുടെ അവിടുത്തെ ഫോൺ കണക്ഷൻ രണ്ടു മൂന്ന് ദിവസമായിട്ട് കണക്ഷൻ പോയി കിടക്കുകയാണ് അപ്പം ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ ഇന്നാണിപ്പോൾ കിട്ടിയത് ഇവിടെ ഒന്നാമതായിട്ട് കരൻറ്റില്ല പിന്നെ ഇവിടെ ഇടിയും മിന്നലായിട്ടിങ്ങനെ കണക്ഷൻ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി നിൽക്കുകയായിരുന്നു അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനു പറ്റിയ ഒരു ഇത് നന്നാക്കാൻ പറ്റിയ ഒരാളെ വിടണം ഇത് പെട്ടെന്ന് റെഡിയാക്കണം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ ആകെ ബുദ്ധിമുട്ടിലാണ് അപ്പോൾ ഇത് പെട്ടെന്ന് റെഡിയാക്കണം ഇതിന് എൻ്റെ നമ്പർ ഞാൻ തരാം എൻ്റെ നമ്പർ ഒൻപത് നാല് അഞ്ച് നാല് ആറ് ഏഴ് എട്ട് ഏഴ് ഒന്ന് പൂജ്യം അപ്പം ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി അപ്പോൾ ഇതിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഈ കണക്ഷൻ പോയതിന് പോയതു കൊണ്ടു തന്നെ അപ്പോൾ പെട്ടെന്നു തന്നെയത് ശരിയാക്കുമെന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഉടനെ തന്നെ ഇവിടുത്തെ ഈ ലാൻഡ് ലൈൻ ഇത് റെഡി ആക്കണം ഇപ്പം ഇവിടെയുള്ള ആളുകളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് അപ്പോൾ ഓക്കെ അപ്പോൾ ഇത് പെട്ടെന്നു തന്നെ പരിഹരിക്കും എന്നു പ്രതീക്ഷിക്കുന്നു നന്ദി ഓക്കെ താങ്ക് യൂ